ആ കുമളി ടൗണിൽ നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്ററിനടുത്ത് ഒരു ചെറിയ വില്ലേജാണ് ചെറിയൊരു ഗ്രാമമാണ് ചെല്ലാർകോവിൽ അരുവിക്കുഴി എന്ന് പറയുന്ന ഈ സ്ഥലം അത് ശരിക്കും പറഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡർൽ അണക്കര അണക്കര പഞ്ചായത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഞാൻ നോക്കിട്ട് ഇടുക്കി ജില്ലയിലെ ഒരു മികച്ച ടൂറിസം സ്പോട്ടാണ് ഈ ചെല്ലാർകോവിൽ അരുവിക്കുഴി എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ അതിനായിട്ടുള്ള എല്ലാ വിധ കാര്യങ്ങളും അവിടെയുണ്ട് അതായത് നല്ല മലകൾ അതായത് ഒരു മലേടെ മണ്ടേൽ നിന്ന് വെള്ളം താഴേക്ക് പോകുന്ന ആ ഒരു സീനത് വളരെ ഭംഗിയാണ് അത് കാണാനായിട്ട് ആസ്വദിക്കാൻ അതുപോലെ തന്നെ ഏകദേശം ഒരു ആയിരത്തി ഇരുനൂറു മീറ്ററ് മുകളിൽ അതായത് സീ ലെവലിൽ നിന്നും സീ ലെവലിൽ നിന്നും ഒരു ആയിരത്തി ഇരുനൂറു മീറ്റർ മുകളിൽ ആണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും ഒരു ഭംഗിന്നു പറഞ്ഞാൽ ആ വെള്ളം ഒഴുകി താഴേക്ക് പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു ഒരു പ്രത്യേക ഒരു രസമാണ് കാണുന്നത് പിന്നെ അത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ശരിക്കും ശരിക്കും നല്ലൊരു സൈറ്റ് അതായത് നല്ല വളരെ മനോഹരമായൊരു സൺ റൈസും സൺ സെറ്റും നമുക്കവിടെ കാണാൻ സാധിക്കും